ഹലോ ഗ്യാസ് ഏജൻസിയല്ലെ ഞാൻ ഒരു ബുക്കിങ്ങിന്റെ ആവശ്യമായിട്ടാണ് വിളിക്കുന്നത് ഈയിടയ്ക്ക് ഒരു സിലിണ്ടറെടുത്തായിരുന്നു പക്ഷെ അതിന്റെ കൂടെത്തന്നെ ഇത് തികയാത്തതു കൊണ്ടാണ് വീണ്ടുമെടുക്കുന്നത് ഒരു ബാക്ക് അപ്പ് എന്ന രീതിയിലാണ് വീട്ടിൽ ഈ വരുന്ന മുപ്പതാം തിയതി ഒരു ബർത്ത് ഡെ ഫങ്ഷൻ നടക്കാൻ പോകുന്നുണ്ട് മോളുടെയാണ് ബർത്ത് ഡെ ഫങ്ഷൻ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളാദ്യം ബ ഇതു ഗ്യാസ് ബുക്ക് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ അത് തികയണമെന്നുള്ളതിന്റെ ഒരു കാര്യത്തിലൊരു സംശയമുണ്ട് അതിനുവേണ്ടിയിട്ടാണ് ഒരു ഗ്യാസ് കൂടെ ബുക്ക് ചെയ്യാമെന്നു വിചാരിച്ചത് അപ്പോൾ അതൊരു ബാക്ക് അപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കാരണം ഞങ്ങൾ ഏകദേശമുള്ളൊരു ആയിരത്തോളം ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ കയ്യിൽ മൂന്നോ നാലോ ഗ്യാസ് ഉണ്ട് പക്ഷേ ഒരു ചിലപ്പം ആൾക്കാർ കൂടുതലാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുറ്റിയൂടെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു അപ്പം അത് അത്യാവശ്യമായിരുന്നു അപ്പോൾ ഞങ്ങളതിനു വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിളിച്ചത് അപ്പോൾ അതിന്റെ കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസൊന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഈ കുറ്റി എത്തിക്കാൻ കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു കാരണം മുപ്പതാന്തിയെന്നു പറയുന്നത് വരുന്ന മറ്റന്നാളാണ് അപ്പം കൂടുതലായിട്ട് നമുക്കു നാളെ നാളെ അല്ലെങ്കിൽ ഇന്ന് ഇന്ന് അടുപ്പിച്ച് ഗ്യാസ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു അപ്പോൾ ഞങ്ങൾ വീടിന്റെ അഡ്രസ്സും ഡീറ്റെയിൽസുമൊക്കെ ഇപ്പം പറഞ്ഞുതരാം ടീ സി അൻപത്തി മൂന്ന് തൊള്ളായിരത്തി എഴുന്നൂറ്റി ഒന്ന് ചെമ്പകശ്ശേരി വിലാസം വഴുതക്കാട് തിരുവനന്തപുരം പിന്നെ ആറ് ഒൻപത് അഞ്ചു പൂജ്യം പൂജ്യം ആറ് ഒന്നൂ കൂടി വേണമെങ്കിൽ പറയാം ടീ സി അൻപത്തി മൂന്ന് തൊള്ളായിരത്തി എഴുന്നൂറ്റി ഒന്ന് ചെമ്പകശ്ശേരി വിലാസം വഴുതക്കാട് തിരുവനന്തപുരം പിൻ ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം ആറ് അപ്പോൾ ഇന്ന് എത്തിക്കയാണെങ്കിൽ ഏ അത്രയും നല്ലതായിരിക്കും അല്ലേ നാളെയാണെങ്കിലൊരൂ ഒരു ഉച്ചക്ക് മുൻപെത്തിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം ബാക്കിയുള്ള കാര്യങ്ങളും ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഞങ്ങൾ എക്സ്ട്രാ സ്ഥലമെടുത്ത് ഷെഡ്ഡ് കെട്ടിയിട്ടാണിവിടെ പാചകത്തിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്നു കിട്ടിയാൽ നല്ലതായിരിക്കും അതിന്റെ ബാക്കിയുള്ള ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ആരംഭിക്കയാണെങ്കിലും അതുപോലെ തന്നെ ഡെലിവറി കറക്റ്റ് സമയത്ത് കൃത്യസമയത്തു തന്നെ എത്തിക്കയാണെങ്കിലും കുറച്ചും കൂടി നല്ലതായിരിക്കുമെന്നു തോന്നുന്നു